കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന പ്രധാന പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാലാ ജൂബിലി അതുപോലെ തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവം അതുപോലെ ക്രിസ്മസും ഒക്കെ ആണെങ്കിലും കോട്ടയം ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവ പരിപാടികളൊക്കെയാണ് അത് ജാതിമതഭേദമെന്നില്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ ഒത്തു ചേർന്ന് ആസ്വദിക്കാറുണ്ട് ഇപ്പം അമ്പലങ്ങളിലെ ഉത്സവം ആയിക്കോട്ടെ അല്ലെങ്കിൽ പള്ളികളിൽ പെരുന്നാൾ ആയിക്കോട്ടെ അങ്ങനെ എന്തെന്നില്ലാതെ ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് ഒത്തു ചേർന്ന് സന്തോഷത്തോടെയാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആഘോഷകരമായി മാറ്റുന്നത് അപ്പം നമ്മുടെ ഈ നാട്ടിൽ ഏതൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും അതിലെല്ലാം മതമോ ജാതിയോ ഒന്നും നോക്കാണ്ട് എല്ലാ തരം ആൾക്കാരും വന്ന് പോവുന്നുണ്ട് അങ്ങനെ ഉള്ളത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആൾക്കാരുടെ ആ ഒരൊത്തൊരുമ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഞാൻ കാണാറുള്ളത് പിന്നെ പ്രാധാന്യം ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു എന്താണ് പരിപാടിയാണ് ഈ ഉത്സവങ്ങളൊക്കെ അപ്പോൾ അതിലൊക്കെ മാറ്റ് കൂട്ടുന്നത് ഇതുപോലെ എല്ലാവരുടെയും ഒരൊത്തുചേരൽ തന്നെയാണ് ഞാൻ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആഘോഷ വേളയിൽ എപ്പോഴും അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ പോവും എല്ലാവരുമായിട്ട് ഒന്നിച്ച് കസിൻസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും ഒന്നിച്ച് പോവും ആസ്വദിക്കും ഒരുപാട് ഫുഡ് ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പോകുന്ന ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ്